എനിക്ക് കുഞ്ഞിലേ തന്നെ ചിത്രരചനയോട് ഒരു ഇഷ്ട്ടം ഉണ്ടായിരുന്നു അതുവെച്ച് സ്കൂളിൽ ഞങ്ങളൊക്കെ ചിത്രരചന പഠിക്കാൻ അങ്ങനൊരു ദിവസം ഒരു അവസരം കിട്ടി അങ്ങനെ ഞാൻ ചിത്രരചന പഠിക്കാൻ ചേർന്നു അപ്പം അതിൽ ചിത്രരചന എന്നു പറയുമ്പം ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഓർത്തു വളരെ ഭയങ്കര എന്തോ പറയാ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാന്ന് വിചാരിച്ചത് പക്ഷേ അത് തീർത്തും നമ്മളത് പഠിക്കുവാണെങ്കിൽ തീർത്തും സിംപിളാണ് ആ ഞാനത് വിശദമായി തന്നെ പഠിച്ചു അവർ ആദ്യമേ നമുക്ക് വരയ്ക്കാൻ ഉള്ള അതായത് നമ്മുടെ കൈ വഴങ്ങാനുള്ള പ്രാക്ടീസ് പ്രാക്ടീസ് തരും അങ്ങനെ നമ്മുടെ ആദ്യമേ കൈ വഴങ്ങുക എന്നതാണ് ഈ ചിത്രരചനയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആ അതിനുശേഷം നമ്മൾ ഒരോരോ നമുക്ക് അവർ നമ്മളോട് പറയും ആദ്യമേ നമുക്ക് ഇഷ്ട്ടമുള്ള വസ്തുക്കളും അതായത് ആ ഇഷ്ട്ടമുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് വളരെ അനായാസമായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നതുമായ വസ്തുക്കൾ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് അത് വരയ്ക്കാൻ പറയും അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ ഓരോരോ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ കണ്ട് പതുക്കെ പതുക്കെ നമുക്ക് കൂടുതൽ ഇഷ്ട്ടമുള്ള ആ വസ്തുക്കൾ നമ്മളിങ്ങനെ വരയ്ക്കാൻ ആരംഭിച്ചു അതിനുശേഷം ഓരോരോ പടി പടി അങ്ങനെ നമുക്ക് വലിയ ഒരു ചിത്രരചനയിലേ ചിത്രരചന നടത്താൻ തന്നെ ഈ പഠനത്തിലൂടെ സാധിച്ചു